ഹലോ യൂബറിലെ സുമേഷല്ലേ എനിക്ക് ഈ നമ്പര് കിട്ടിയത് നിങ്ങളുടെ യൂബറിലെ എജന്സിയിൽ നിന്നാണ് ഞാന് നിങ്ങൾ ഓര്ഡര് ചെയ്തിട്ട് ഞാന് യൂബറ് കണക്ട് ചെയ്തിട്ട് ഇപ്പം ഒരു ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം ആയി എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകാന് വേണ്ടിയാണ് ഞാന് യൂബറ് വിളിച്ചത് പക്ഷെ എന്താണിത്ര താമസിക്കാന് കാരണം ഒന്നറിയാന് വേണ്ടിയായിരുന്നു ഞാനിപ്പം വിളിച്ചത് ഞാനല്ലെങ്കില് അതൊന്നു ക്യാന്സല് ചെയ്യാന് വേണ്ടിയായിരുന്നു ഞാന് ഏജന്സിയെ വിളിച്ചായിരുന്നു അപ്പം പതിനഞ്ച് മിനിറ്റ് താമസിച്ചെങ്കില് സാറത് ക്യാന്സല് ചെയ്തോളാനാണ് അവര് എന്നോട് പറഞ്ഞത് ഞാ അപ്പം നിങ്ങൾ ഏകദേശം എന്റെ അടുത്തെത്താറായോ എനിക്ക് ഒന്ന് അറിയാന് വേണ്ടിയാരുന്നു ഇതില് മാപ്പില് നമ്മള് സെര്ച് ചെയ്യുമ്പോൾ ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങള് വണ് മിനിറ്റ് റ്റു മിനിറ്റ് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ ഇത്രയും പതിനഞ്ച് മിനിട്ടായിട്ടും നിങ്ങള് ഇതുവരെ നമ്മുടെ എന്റെ അടുത്ത് എത്തിയിട്ടില്ല ഒരു സഹായം ചെയ്യാമോ ഞാനതൊന്നു ക്യാന്സല് ചെയ്തിട്ട് ഞാന് വേറൊരു യൂബറോ അല്ലെങ്കില് ഓല കണക്ട് ചെയ്തിട്ട് ഞാന് പൊക്കോളാം വേറൊരു കണക്ട് ചെയ്തിട്ട് ഞാൻ പൊക്കോളാം അപ്പോൾ താങ്കള്ക്ക് അതൊന്നു ക്യാന്സല്ല് ചെയ്യാന് പറ്റുമോ എന്ന് അറിയാന് വേണ്ടി ആയിരുന്നു ഞാന് വിളിച്ചത് അപ്പം താങ്കള് അതൊന്നു ക്യാന്സല് ആക്കിയിരുന്നേൽ വലിയ ഉപകാരമായിരുന്നു